കണ്ണൂർ ജില്ലാ ഇന്ന് മറ്റുള്ള ജില്ലകൾ പോലെ വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്നൊരു ജില്ലയാണ് വളരെ പെട്ടന്നാണ് കണ്ണൂർ ജില്ല വികസിച്ചുകൊണ്ടിരിക്കുന്നത് പലതരം മന്ത്രിമാരും പലരുടെയും ജന്മ സ്ഥലം കൂടിയാണ് കണ്ണൂർ ഇവിടെ പക്ഷേ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പല രീതിയിലും നടക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ണൂർ ജില്ലയിൽ വരാനുണ്ട് ഇന്ന് കണ്ണൂർ എന്ന് പറയുന്ന ടൗണിൽ തന്നെ വളരെയധിയകം ബ്ലോക്കുകൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെത്തന്നെ മേൽപ്പാലങ്ങൾ വരേണ്ട സമയങ്ങൾ എത്രയോ മുന്നെ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കണ്ണൂർ ടൗണിൽ അനുഭവപ്പെടുന്ന ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽത്തന്നെ അത് മനസിലാക്കാൻ പറ്റും അതുകൂടാതെ റോഡുകളുടെ കാര്യമായാലും കണ്ണൂർ ജില്ലയിലെ റോഡുകൾ പല സ്ഥലത്തും ഇന്നും കുണ്ടും കുഴിയുമായിട്ടാണ് ഉള്ളത് അതൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യങ്ങളുണ്ട് ഇന്ന് പല തരത്തിലുള്ള ആക്സിഡന്റുകൾ നടക്കുന്നത് പോലും ഈ കുണ്ടും കുഴിയും കാണാതെ പല വണ്ടികളും ആക്സിഡൻ്റ് ആയിട്ട് പല ആളുകളും മരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ കൂടാതെ ഇവിടെ പല തരത്തിലുള്ള വ്യവസായങ്ങൾ വരണം പലതരത്തിലുള്ള വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ തൊഴിലില്ലായ്മ കൂടുതലും മാറി ഇന്ന് പല ആളുകളും കൊറോണ സമയത്തുള്ള പല ആളുകൾക്കും ഇന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പലയാളുകൾക്കും ഇന്ന് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെയുള്ള കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു ജോലി ഇതുപോലെയുള്ള വ്യവസായ സ്ഥാപനങ്ങളും മറ്റും വന്നു കഴിഞ്ഞാൽ പലർക്കും ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണിവിടെ അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ കണ്ണൂർ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതുകൂടാതെ പലതരത്തിലുള്ള മാറ്റങ്ങൾ കണ്ണൂർ ജില്ലയിൽ വരാനിരിക്കുന്നുണ്ട്